എൻ്റെ ഒഴിവുസമയം തുടങ്ങുന്നത് രാവിലെ എൻ്റെ മകൻ സ്കൂളിൽ പോയ ശേഷമാണ് അതായത് ഏകദേശം ഒരു എട്ടു മണി കഴിയുമ്പോൾ എട്ട് എട്ടര ആകുമ്പോൾ എൻ്റെ ഒഴിവുസമയം ആരംഭിക്കും അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്നു വെച്ചാൽ രാവിലെ ബ്രേക്ക് ഫാസ്റ്റ് കഴിക്കും അതിനുശേഷം എൻ്റെ മെഡിസിൻ ഒക്കെ കഴിക്കും എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കിളികൾ വളർത്തുന്നുണ്ട് മീനുകൾ വളർത്തുന്നുണ്ട് അവ അവരുടെ ഒക്കെ ഫുഡ് കൊടുക്കും അവരുടെ കൂടൊക്കെ ക്ലീൻ ചെയ്യും ശേഷം അമ്മയെ കുറിച്ചൊക്കെ സഹായിക്കും തുണി അലക്കും അതിനെ ഉണക്കാൻ ഇടും വീടു നന്നായി തുടച്ചു വൃത്തിയാക്കും പിന്നെ കുറച്ചുനേരം യൂട്യൂബ് കാണാറുണ്ട് യൂട്യൂബിലെ കുക്കിങ് കാണാറുണ്ട് ഏറ്റും ഇഷ്ടം എനിക്ക് കുക്കിങ് ചെയ്യാനാണ് അതായത് യൂട്യൂബിലെ പാചക പരീക്ഷണങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം നോൺ വെജ് കുക്ക് ചെയ്യാണ് ഏറ്റും ഇഷ്ടം പിന്നെ എനിക്ക് ഇഷ് ഷോപ്പ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് അത് എല്ലാ മാസവും ചെയ്യും പക്ഷേ അതെനിക്ക് ആഴ്ചയിൽ ചെയ്യാനും ഇഷ്ടമാണ് പിന്നെ മോനെ വിളിക്കാൻ പോകും മോൻ്റെ കാര്യങ്ങൾ ചെയ്യും പിന്നെ പിന്നെ മാർക്കറ്റിൽ പോകും പച്ചക്കറി മേടിക്കും മീൻ വാങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ പിന്നെ സമയം കിട്ടുമ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങാറുണ്ട് പിന്നെ എന്താണ് അപ്പുറത്തെ ആൻറ്റിമാരോടൊക്കെ കുറച്ചു നേരം സംസാരിക്കും അതൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ നന്നായിട്ട് പാ എന്താണ് കൊച് കൂ നോൺ വെജ് കുക്ക് ചെയ്തു കഴിക്കാറുണ്ട് ഫ്രീ ടൈമുകളിൽ പിന്നെ ടി വി കാണാറുണ്ട് വാർത്ത കാണാറുണ്ട് പിന്നെ എന്നാൽ പാട്ടൂ കേൾക്കാറുണ്ട് ഏറ്റവും ഇഷ്ടം നന്നായിട്ട് ഉറങ്ങാനാണ്